ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനപ്രിയ കായികങ്ങള് എന്ന് പറഞ്ഞാൽ ഹോക്കി ടേബിൾ ടെന്നീസ് ഫുട്ബോള് പിന്നെ ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പ്രശസ്തമായ കായികതാരങ്ങൾ എന്ന് പറഞ്ഞാൽ സുനിൽ ഛേത്രി പിന്നെ ഐ എസ്ൻ്റെ അകത്തുള്ള നമ്മുടെ സി കെ വിനീത് പിന്നെ നമ്മുടെ കെ പി രാഹുൽ അങ്ങനെയുള്ള പ്ലെയേഴ്സ് പിന്നെ എന്താ ആ അങ്ങനെയുള്ള നല്ല നല്ല പ്ലെയേഴ്സ് ഉള്ള സ്ഥലാണ് പിന്നെ പഞ്ചാബിൽനിന്നൊക്കെ ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ചെസ് ചാമ്പ്യനുണ്ട് ആ അങ്ങനെ വളരെയധികം നല്ലൊരു പ്രശസ്തമായ രാജ്യമാണ് ഇന്ത്യ